ആ അതെ അതെ മൈ ജിയാണ് ആ നമുക്ക് കുറച്ച് മോഡല് പുതിയതായിട്ട് നമുക്ക് വന്നിട്ടുണ്ട് നമുക്ക് ഇപ്പോൾ സാംസങ്ങിൻ്റെ കുറെ കുറച്ച് സീരീസ് എസ് സീരീസ് കുറച്ച് ഉണ്ട് അത് എസ് ട്വൻ്റി ഫോറും ട്വൻ്റി ഫൈവും അൾട്രാ ഒക്കെ ഉണ്ട് പിന്നേ ഐ ക്യൂ അങ്ങനത്തെ കുറച്ച് ഫോണുണ്ട് പിന്നെ ഓപ്പോ റെഡ്മിക്ക് പൊക്കോയ്ക്കൊക്കെ കുറച്ച് നല്ല ഫോണുകളൊക്കെ വന്നിട്ടുണ്ട് മേം ഏതാണ് ബ്രാൻഡ് ഏതാണ് നോക്കുന്നത് ആ അപ്പം അങ്ങനെ ആണെങ്കിൽ നമുക്ക് ഒരു രണ്ട് ഫോൺ നമുക്ക് മുമ്പിലോട്ട് വെക്കണം നമുക്ക് സാംസങ് എസ് സീരീസ് നമുക്ക് വെക്കാം കുഴപ്പമില്ല നല്ലതാണ് കാമറ ആണേലും എന്തിനാണേലും കുഴപ്പമില്ല പിന്നെ ഐ ക്യൂ വെക്കാം ഐക്യൂന പിന്നേ പുതിയ മോഡല്കളൊക്കെ വരുന്നുണ്ട് അതിലിപ്പോൾ ഈ ലെയ്റ്റെസ്റ്റ് മോഡല് ഒരു തിർട്ടീൻ ഉണ്ട് ഇപ്പം ഓൾറെഡി ഇരിപ്പുണ്ടിവിടെ അല്ല സാംസങ് കുറച്ച് നാൾക്ക് മുമ്പ് വരേ കുറച്ച് പ്രശ്നങ്ങളായിട്ടുള്ളതായിരുന്നു ഇപ്പം ആ നല്ല ഫോണാണ് ഇപ്പോൾ ചെറുതായിട്ടൊരു ഹീറ്റിങ് ഇഷ്യൂസ് മാത്രം വരുന്നുള്ളൂ അത് വലിയ ഇഷ്യൂ ആയിട്ടല്ല അത് വളരെ നോർമലി ഇപ്പോൾ എല്ലാ ഫോണിനും വരുന്നൊരു ഹീറ്റിങ് ഇഷ്യൂസാണ് അതിനും സെയിം ഇതേപോലെ തന്നെ പക്ഷേ ഈ രണ്ടും കൂടെ കംപെയർ ചെയ്യുമ്പം സാംസങ് എസ് ട്വൻ്റീ ഫോറ് തന്നെയാണ് നല്ലത് നമുക്ക് എസ് ട്വൻ്റി ഫോർ അൾട്രായ്ക്ക് അൾട്രയാണെങ്കിൽ നമുക്ക് അതൊരു ഒന്നേകാല് സംത്തിങ് വരുന്നുണ്ട് ആ അതേ മേം അതെ അതെ ആ ഓക്കെ അങ്ങനെ ആണെങ്കിൽ നമുക്ക് ഐ ക്യൂ തന്നെ നോക്കാം നമുക്കൊരു നാൽപ്പതായാൽ കുഴപ്പം ഉണ്ടോ നാൽപ്പതിനായിരം ഡിസ്ക്കൗണ്ട് നമുക്കിപ്പം കുറച്ച് ക്രിസ്മസ് ഓഫർ നമുക്ക് ഇപ്പം നടക്കുന്നുണ്ട്

നമുക്ക് അത് എങ്ങനാണേലും നമുക്കൊരിപ്പോൾ നാൽപ്പതിൻ്റെ ഫോൺനൊരു മുപ്പത്തി ആറ് അത്രയും രൂപയ്ക്ക് നമുക്ക് ചിലപ്പം എടുക്കാനായിട്ട് സാധിക്കില്ല എങ്കിൽ പിന്നെ ഇ എം ഐ ഓപഷൻ ഉണ്ട് ആ നമ്മൾ ഇപ്പം ഇതില് നമുക്ക് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല നമ്മള് മുകളിൽ നിന്നുള്ള ഇതിലല്ലെ നമുക്ക് എല്ലാം ചെയ്യാന് പറ്റൂള്ളു നമുക്ക് പറഞ്ഞേക്കുന്ന ഇപ്പം ഒരു ക്രിസ്മസ്ന് ഓഫറായിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഗിഫ്റ്റും കൂടെ കിട്ടുന്നുണ്ട് അല്ലല്ലാ അത് നമുക്കൊരു ഫൈവ് തൗസൻണ്ട് റുപ്പീസിന് അകത്ത് വരുന്ന എന്തേലും ഐറ്റെംസ് ആയിരിക്കും ഇല്ല നമുക്ക് ആ ഒരു ഓപ്ഷനില്ല മേം നമുക്ക് നമുക്ക് അങ്ങനെ ഒരു സംഭവമില്ല ഈ എം ഐ മേം ഏത് ബാങ്കിലിത് എടുക്കാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത് മേം അങ്ങനെ ആണെങ്കിൽ മേം ഷോപ്പിലോട്ടൊന്ന് വരുവാണെങ്കില് നമുക്ക് അതാത് ബാങ്കിൻ്റെ ആൾക്കാരുണ്ട് അപ്പോൾ അവരായിട്ടപ്പം നമുക്ക് ചെക്ക് ചെയ്ത് സിവിൽ സ്കോറും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് അപ്പോൾ അപ്പം സെറ്റ് ആക്കാം ആ വന്നോളു വന്നോളൂ എന്നെ വന്നിട്ടൊന്ന് വിളിച്ചാൽ മതി അപ്പോൾ ഞാനായിട്ട് അപ്പോൾ തന്നെ എല്ലാം ഡീൽ ചെയ്ത് തരാം ആ ആ ഓക്കെ ഓക്കെ